കത്തയക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയും പറയാനുള്ളത് കത്തയക്കുക എന്ന് പറഞ്ഞത് വെച്ചാൽ ഇപ്പം ആദ്യം ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഇപ്പം പുറമെയുള്ളവർക്കൊക്കെ അയക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത് പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം സാങ്കേതികവിദ്യ വന്നതിന് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുവഴി ഇപ്പം ഒരു ഇപ്പം അഡ്മിഷൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് അതായത് ഫോം ഫിൽ ചെയ്തിട്ട് നമ്മൾ ഓരോരോ കോളേജിലും കൊണ്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇപ്പം സാങ്കേതികവിദ്യ വന്നതിന് പിന്നെ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട ആവിശ്യമില്ല അതുകൊണ്ട് സ്കൂളിലൊക്കെ അലോട്ട്മെൻ്റിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഓരോ സ്കൂള് എഴുതിയിട്ട് ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോമ് നമ്മളെത്ര സ്കൂള് വയ്ക്കേണ്ടതെന്ന് ആ സ്കൂളിൽ മൊത്തം കൊണ്ടുകൊടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയൊരു വെബ്സൈറ്റ് വഴി നമ്മൾ എല്ലാ കോളേജിലായാലും സ്കൂളിലായാലും നമ്മൾ അയക്കണം അപ്പം നമുക്ക് പോയിവരാനുള്ളൊരു ബുദ്ധിമുട്ടോ അങ്ങനയൊന്നും ഇല്ല അതുപോലെത്തന്നെ സമയത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ ഒരു സാങ്കേതികവിദ്യ വന്നതിൽപ്പിന്നെ നമുക്ക് നല്ലപോലെ ഇത് സമയം കിട്ടുന്നുണ്ട് ഏതൊരു കാര്യത്തിനാണെങ്കിലും സമയങ്ങൾ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട് അതുപോലെത്തന്നെ പറയാനാണെങ്കിൽ സാങ്കേതികവിദ്യ വന്നുകഴിഞ്ഞപ്പംതന്നെ പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ഇപ്പം എവിടെയെങ്കിലും ഒരു ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ കുറച്ച് പൈസ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒന്നുകിൽ അവിടെ കൊണ്ടുകൊടുക്കണം അല്ലെങ്കിൽ വേറെ എന്താണ് പോസ്റ്റ് വഴിയൊക്കെ അയക്കണം അല്ലേ ഇപ്പം ഇത് ഇങ്ങനെ വന്നപ്പം ഇപ്പം ജി പേ അത് ഇതൊക്കെ സാങ്കേതികവിദ്യയിൽ പെട്ടത് തന്നെയാണ് ഓൺലൈൻ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ഇപ്പം അത് ഒക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്ന് പറഞ്ഞത് വെച്ചാൽ പഠിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും ഓൺലൈൻ വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം പിള്ളേർക്ക് ആണെങ്കിൽപ്പോലും ഇപ്പം വെക്കേഷൻ ക്ലാസുകളൊക്കെ ഓൺലൈൻ ഇപ്പം കോവിഡ് വന്ന സമയത്താണ് കൂടുതലും സാങ്കേതികവിദ്യ നമുക്ക് ഉപകാരപ്പെട്ടത് ഇപ്പോൾ ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽപ്പോലും തന്നെ ഇപ്പം ആദ്യമൊക്കെ ഓഫീസിൽ ഇപ്പോൾ ഒക്കെ പേപ്പറ് മുഖേനയായിരുന്നു ഇപ്പം എല്ലാം ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ വഴിയാണ് നമ്മൾ ട്രാൻസാഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതൊക്കെ ഒരു ഇതാണ് പിന്നെ എൻ്റെ ഇതിന് മാറിയത് എന്ന് പറഞ്ഞത് വെച്ചാൽ ഇതൊക്കെ തന്നെ പഠിക്കാനുള്ളൊരു കാര്യം നമ്മൾ നോട്ട് ആക്കി അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്നതിനെക്കാട്ടിയും ഇപ്പോൾ ഫോണ് ഫോണും സാങ്കേതിക വന്നതിൽപ്പിന്നെ ശേഷം ഫുൾടൈം ഫോണും അതിൽത്തന്നെ നോക്കിയിട്ടൊക്കെയാണ് പഠിക്കലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു പേപ്പർ എടുക്കുക പഠിക്കുക നോക്കുക അത് അങ്ങനെയായിരുന്നു ഇതിപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് പഠിച്ചാൽ മതി സമയം എങ്ങനെയുള്ളതെന്ന് ഓർത്ത് ചെയ്താൽ മതി ഇപ്പം എല്ലാ കാര്യവും ഇപ്പം ഈ സാങ്കേതികവിദ്യ വന്നതിൽപ്പിന്നെ എല്ലാ കാര്യങ്ങളും അതാണ് സാങ്കേതികവിദ്യ മുഖേനയാണ് ഇപ്പം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇപ്പം എനിക്ക് മാറിയത് എന്തുട്ടാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യം തന്നെയാണ് പഠനകാര്യത്തിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെത്തന്നെ സമയത്തിൻ്റെ കാര്യത്തിലും കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നിനും അലപ്പില്ല ഇനിപ്പം ഒരാളെ പെട്ടെന്ന് കാണണം അല്ലെങ്കിൽ വിളിക്കണം അല്ലെങ്കിൽ പേയ്മെൻറ്റ് പിന്നെ പേയ്മെൻ്റിൻ്റെ കാര്യം ആണെങ്കിലും ഈ ഇത് ഓൺലൈൻ വഴി നമുക്ക് പെട്ടെന്ന് അതും നടത്തി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ സമയവും അതുപോലെത്തന്നെ പഠിക്കാനുള്ള ഒരു സെറ്റപ്പും